ആ കേൾക്കുന്നുണ്ട് റിൻറ്റു സ്ട്രെക്സായ് എനിക്ക് സ്ട്രെക്സാണ് ഭയങ്കര മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലെംസ്

ഞാൻ ഇപ്പം ടീച്ചറാണ്

ആ അല്ല ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാ പഠിപ്പിക്കുന്ന കോഡിംഗ് നമ്മൾ കൂടുതലായിട്ടും എന്താ പറയുക സിസ്റ്റത്തിലാണ് ചെയ്തോണ്ടിരക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇത് ചെയ്യുന്നതിന് അനുസരിച്ച് ഓവറായിട്ട് സ്ട്രെക്സ്ണ്ടാവും മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും

നമുക്ക് ആ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തില്ല എവിടുന്നെങ്കിലും ഏററ് കാര്യങ്ങളൊക്കെ വരുമ്പോഴ്ത്തേക്കും നമുക്ക് വല്ലാണ്ട് സ്ട്രെസ്സാവും ഏയ് നോവേ സിസ്റ്റത്തിൻ്റെ എല്ലാ സിസ്റ്റത്തിൽ ഒരേ വേയിലല്ലേ പോകുന്നത് ഡിഫ്റൻ ടൈപ്സായിരിക്കും ഓരോ സിസ്റ്റത്തിൽ അപ്പം നമുക്ക് അതെങ്ങനെ ആ ലോജിലി ലോജിക്കിലേക്കെത്താൻ വേണ്ടി കഴിയത്തില്ല ഒരു ഫൈ വോർ സിക്സ അവേസ്

അല്ലാത്ത സമയത്ത് നമുക്ക് വർക്ക് ഫ്രം ഹോമുണ്ടാവൽ അതിൻറ്റേതായ സ്റ്റുഡൻസിൻ്റെ പേപ്പർ വർക്സും കാര്യങ്ങളൊക്ക ചെയ്യാനുണ്ടാവും പ്രോജക്സ്

ആ ലീവ് സൺഡേ ലീവാണ്

ഏയ് നോ ഏയ് നോ വേ ആ ആയിക്കോട്ടെ ആ ഓക്കെ താങ്ക് യൂ മേം